ആ ഹലോ എ വണ് ട്രാവല്സല്ലേ ആ ഹലോ സാര് ഞങ്ങൾക്ക് അഞ്ചാം തീയതി തിങ്കളാഴ്ച്ച ഗുരുവായൂർ പോകാൻ വേണ്ടി ആയിരുന്നു സാര് ഒരു പത്ത് പേരാണ് ഞങ്ങളുടെ ടീമിലുള്ളത് നമുക്ക് ഒരു ഇത് അമ്പൂരിയെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത് ആ അതെ അതെ അതെ നമുക്ക് പത്ത് പേരുണ്ട് ഞങ്ങൾ പത്ത് പേർ പത്ത് പേർ സാർ അതെ അതെ അതെ വണ്ടി അവൈലബിളാണോ സാര് അതെ അഞ്ചാം തീയതി അല്ല സാര് നമുക്ക് പത്ത് പേരുണ്ട് നല്ല ദൂരമുള്ളതുകൊണ്ട് ഒന്ന് നല്ല ഒരു തിരക്കൊന്നുമില്ലാതെ ആ ആ കുഴപ്പമില്ല അത് കുഴപ്പമില്ല അതു കുഴപ്പമില്ല സാർ അത് കുഴപ്പമില്ല നമ്മൾ ആ ഓക്കെ ഓക്കെ ആ എ സി ആയിക്കോട്ടെ സാര് കുഴപ്പമില്ല എ സി മതി ആ നമുക്ക് ചാര്ജസൊക്കെ എങ്ങനെയാണ് സാര് എ സിക്കും നോണ് എ സിക്കും ഒക്കെ ആയിട്ട് കിലോമീറ്ററല്ലേ ഓക്കേ ആ ആ ഓക്കെ അപ്പോൾ നോണ് ഏ സി ആണെങ്കിലോ സാര് എത്രയാവും ആ ഇത്ര ദൂരമൊക്കെ ആയതുകൊണ്ടല്ലേ ആ അത് സാറെ നമ്മൾ നമ്മൾ വലിയ കാശുകാരൊന്നുമല്ല മാക്സിമം കുറച്ച് തരണം സാര് അങ്ങനെ അല്ല ഏറ്റവും കൂടുതൽ നിങ്ങളെ വിശ്വാസം ഉള്ള ട്രാവല്സാണ് അത് കൊണ്ടാണ് ഞങ്ങള് അങ്ങോട്ട് വിളിച്ചത് സാര് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങള് പോകാന് ഉദ്ദേശിക്കുന്നത് മോണിങ്ങ് അഞ്ചാം തീയ്യതി മോണിങ്ങ് ഫൈവ് ഒ ക്ലോക്കാണ് സാര് ആ സമയത്ത് അവൈലബിളാണോ ആ ഓക്കെ ഒക്കെ ഒരു ഒരു നമ്മളിപ്പോൾ ഒരു ഫുള് ഡേയ്സ് ഇന്ന് മോണിങ്ങ് പോയാൽ നാളെ എത്തുന്ന അങ്ങനെ ഫുള് ആവുമ്പോഴത്തേനും ഏകദേശം കിലോമീറ്റര് ആണോ അതോ ഒരു ഡേയ്സിന് അങ്ങനെ ഉണ്ടോ സാര് കിലോമീറ്ററാണ് പോകത്തുള്ളു അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ആദ്യത്തെ കിലോമീറ്റര് കഴിഞ്ഞിട്ട് എത്രയാണ് ചാര്ജ് ചെയ്യുന്നത് സാര് ഇരുപത് ഓഹ് അത് അല്പം കൂടിയൊന്ന് കുറച്ച് തരൂ സാര്

എന്നാലും നോക്കു സാര് നമ്മൾ ഈ സ്ഥിരം എല്ലാ വര്ഷവും പോകുന്നത് ആണ് സാര് രണ്ടു രൂപയെങ്കിലും കുറയ്ക്കു സാര് ആ കുഴപ്പമില്ല ആ ഓക്കെ റെഡി എന്തായാലും ചെയ്യു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു തരണം വരുമ്പോൾ നോക്കിയിട്ട് മതി ആ ഓഹ് ശരി സാറെ ആ ആ ആ ഓക്കെ ആ ഞാൻ ഈ നമ്പറിലോട്ട് ഇപ്പം തന്നെ അയച്ചു തന്നേക്കാം സാര് അഞ്ചു മണി തിങ്കളാഴ്ച്ച രാവിലെ അഞ്ചു മണിക്ക് സാറെ ഓക്കെ സാര് താങ്ക് യു